എന്റെ നാട്ടിൽ തന്നെ കുറേ സംഘടനകളുണ്ട് പുല്പറ്റ സംഘടന കീഷീൽ സംഘടന അങ്ങനെ പറഞ്ഞു കുറേ സംഘടനകളൊക്കെയുണ്ട് പിന്നെന്റെ സ്കൂളിൽ കുറേ സംഘടനകളുണ്ട് സാറുമ്മാരൊക്കെ കൂടിച്ചേര്ന്നു കൊണ്ട് ഉണ്ടാക്കണൊരു സംഘടന അതിൽ സാറന്മാരൊക്കെ കൂടി പിരിവിട്ടു കൊണ്ട് കുട്ടികള്ക്ക് ഫുട്ബോളിലത്തെ അംഗങ്ങള്ക്കൊക്കെ ഷൂവും കുപ്പായവും ട്രൗസറും പിന്നെ കാൽനു വെക്കണെ വെട്ടുമ്പോൾ വെക്കണെ സുരക്ഷിതമായിട്ടുള്ളൊ രു പാഡും പിന്നേ ഷു ബൂട്ടും അതിനു പറ്റിയ ഷൂ താപ്പു സോക്സും ഒക്കെ ഗ്ലൗവ്വും കൈയ്യുറയും ഒക്കെ സാറന്മാർ തന്നെ കൊടുക്കലുണ്ട് പിന്നെൻ്റെ താ പിന്നെ അന്തര്ദ്ദേശീയത്തേക്കു പോയാൽ ആരെയും ച അറിയില്ല അൻ അന്തര് ദേശീയ ച്ചാ അറിയില്ല പിന്നെന്റെ താത്താ രണ്ടിൽ നിന്നു മുതൽ പ്ലസ് റ്റു വരെ സ്പോര്ട്സൊക്കെ കായികതലത്തിനൊക്കെ കൂടിയ ആളാണ് അതു കൊണ്ട് അങ്ങ് അതു കൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇത് കുറേ അറിയാം ഇച്ച് പിന്നേ ഞങ്ങൾ സ്കൂൾ സങ് ഈ സംഘടന കൂടാണ്ട് സ്കൂൾ സബ് ജില്ലയും ജില്ലക്കൊക്കെ പോയിക്കിണ് സബ് ജില്ലയിൽ ഞങ്ങൾക്ക് കപ്പൊക്കെ കിട്ടിയേക്കണ് ഒന്നാസ്ഥാനവും പിന്നെ പൂക്കൽത്തൂർ സ്കൂളിനും കപ്പൊക്കെ എന്റെ താത്ത വാങ്ങിക്കൊടുത്തിരിക്കണ് നല്ല സംഘടനകളൊക്കെ ഉണ്ടായതു കൊണ്ടു തന്നെ ഇത് ഇങ്ങനത്തെ സംഘടനകളൊക്കെ ഉണ്ടാക്കണതു തന്നെ സാറുമ്മാരാണ് സാറുമ്മാർ പിന്നെ നാട്ടുകാരും കുറച്ച് ആള്ക്കാരുണ്ടാകും ഇതൊക്കെയാണ് ഉള്ളത്